അതെ പറഞ്ഞോളൂ ആ പറഞ്ഞോട്ട് ഓക്കെ ഞങ്ങൾ ഇപ്പം മെയിൻ ആയിട്ട് സപ്ലൈ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പാലും തൈരും ആണ് പക്ഷെ സൈഡ് ആയിട്ട് ഞങ്ങൾ നെയ്യും വെണ്ണയും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പേടയിൽ ആയി ഞങ്ങൾ അത് ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടില്ല പക്ഷെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പാലും തൈരും ആണ് ഞങ്ങൾ ഇവിടുന്ന് വിറ്റ് കൊടുക്കുന്നത് ആണ് ആണ് ഞങ്ങൾ സർട്ടിഫൈഡ് ആണ് ഞങ്ങൾ ഇവിടെ ഒഫീഷ്യൽ ആയിട്ടാണ് ഈ കാര്യം നീങ്ങുന്നു അപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെത്തെ കുഴപ്പം ഒന്നും ഇല്ല ഓക്കെ നിങ്ങൾ ഹോൾ മിൽക്ക് ആണോ കൂടുതലായിട്ട് നോക്കുന്നത് ഓക്കെ

തീർച്ചയായും തീർച്ചയായും നിങ്ങൾ ആ ഒരു ഫാക്ടറിയിൽനിന്ന് പേടിക്കാതെ ഒരു കാര്യം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇവിടെ ലോ ലെവൽ ബാച്ച് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് അതായത് ഒരു ഒരു അമ്പത് പേർക്കുള്ള അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് സപ്ലൈക്ക് അല്ലേ ടു ടു ത്രീ ഡേയ്സ് സപ്ലൈയായിട്ട് ഞങ്ങളൊരു മിൽക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇത് ഇട്ടാൽമതി അതെ ആ ഒരു ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നുണ്ട് ഞങ്ങൾ ഗീയുടെ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ പേട സ്വീറ്റ്സെമ്മിലും ഡയറി സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് പേട ഇപ്പം ഞങ്ങൾ ഡയറി ഐറ്റംസ് ഫോക്കസ് ആയതുകൊണ്ട് പേട ഒരു ലൈനേ ഇവിടെ ഇതുവരെ വന്നിട്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ ആ ഞങ്ങൾ ഇവിടെ അത് വിൽക്കുന്നത് ഞങ്ങൾ ഈ ബൾക്ക് ആയിട്ടാണേ അപ്പോൾ ഈ കിലോടെ ഒരിത് റേറ്റിൽ വെച്ചാണ് നോക്കുന്നത് കിലോയ്ക്ക് ഏകദേശം ഒരു ടു ഫിഫ്റ്റി ത്രീ ഹണ്ട്രഡ് ആണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു നോർമൽ റേറ്റ് ഇപ്പം നോക്കുന്നത് കാരണം ഞങ്ങൾ ഇത് തുടങ്ങി വരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊരു മനസ്സിലാവുന്നേ വരുന്നുള്ളു അപ്പോൾ ഒരു കസ്റ്റമേഴ്സ് എങ്ങനെ സ്വീകരിക്കും എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള ഒരു കൺസ്യൂമേസ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോമ്പറ്റിഷൻ ആയിട്ട് കയറാൻ പോവുന്നത് അതായത് ഇത് ഞങ്ങൾ ഒരു കോമ്പറ്റിഷൻ ഉദ്ദേശിച്ചല്ല അത് ഈ പേടയുടെ ലൈൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു ആൾക്കാർക്ക് ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടേ ഞങ്ങൾ ഉടനെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളു അതുകൊണ്ട് ആ നിങ്ങളത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ബാച്ച് കൂടെയായിരിക്കും സോ ക്വാളിറ്റിയും കൺട്രോളും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഞങ്ങൾ നോക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യൂ ടേക്ക് കെയർ